ഹലോ പറഞ്ഞോളൂ അതെ അതെ ചോദിച്ചോളു

ചുവന്നരി നമ്മുടെ പാലക്കാടൻ മട്ടയുണ്ട് ഒർജിനൽ പാലക്കാടൻ മട്ട ആ അതിൽ രണ്ടയിറ്റം ഉണ്ട് ഉണ്ടയുണ്ട് വടിയരിയുണ്ട് അതായത് വടി അരിന്ന് വച്ചാൽ നീളം കൂടി നീളത്തിലുള്ള അരി ഉണ്ട അരി കുറച്ചൂടെ നീളം കുറഞ്ഞരി ഇത് രണ്ടും ഉണ്ട് വില പിന്നെ ഇവിടെ അറുപത് അറുപത്രണ്ട് രൂപ അതിൻ്റെ റീട്ടെയിൽ പ്രൈസ് ഒരു കിലോയ്ക്ക്

സദ്യക്ക് വെള്ളഅരീന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ എന്താണ് അതിൻ്റെ പേര് സോറി മറ്റേ ആ ആ പേര് ഞാൻ മറന്നുപോയി വെള്ളയരി നല്ല ഒന്നാന്തരം അരിയുണ്ട് സദ്യക്കൊ ആ സദ്യക്ക് കൊണ്ടുപോവുന്ന അരിയാണ് അതിൻ്റെ പേര് സോറി ഞാൻ മറന്നുപോയി അത് വെള്ളയരി നമ്മുടെ കോമണായിട്ടുള്ള അരിയാണ് അതിൽ തന്നെ രണ്ട് മൂന്ന് ബ്രാൻറ്റൊണ്ട് നല്ല ബ്രാൻറ്റൊണ്ട് അതിൻ്റെ പിന്നെ കുട്ടനാടിനരിയാണ് കുട്ടനാടി ഇപ്പോൾ ഏറ്റോം കൂടുതൽ ഇപ്പം ചിലവിപ്പം മറ്റേ വടക്കുംന്നൊള്ള അരികൾക്കാണ് കാരണം പാലക്കാടൻ മട്ടയാണിപ്പം ഏറ്റോം മുൻപിൽ നിൽക്കുന്ന ഒരൈറ്റം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ആൽ പിന്നെ എന്താണ് കാലടിന്ന് വരുന്നത് പെരിയാർ ആ ഭാഗത്തെന്നുള്ള അവരിവിടന്ന് കുട്ടനാട്ടിലെ അരി അവിടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്താണ് തിരിച്ച് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് വിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊണ്ടക്കുന്നത് പാ കുട്ടനാട്ടിലാണേലും ബ്രാൻറ്റെയുന്നത് കാലടിന്നാണ് ഓരോ കമ്പനിടെ പേരിൽ

ആ ബിരിയാണിക്കുള്ള അരിയെന്ന് പറഞ്ഞത് ഇന്ത്യ ഗേറ്റൊണ്ട് പിന്നെ റോസ് ബ്രാൻറ്റൊണ്ട് അതൊക്ക തന്നെയാണ് ഇപ്പം നല്ലത് ഇന്ത്യ ഗേറ്റാണിപ്പം ഒരുമാതിരി മികച്ച് നിൽക്കുന്നത് അതിൽ പുതിയതായിട്ടിപ്പം കുറച്ച് നാളായിട്ട് വന്നതാണ് റോസ് ബ്രാൻഡ് റോസ് ബ്രാൻഡ് നല്ല അരിയാണ് ബിരിയാണിക്കാണെങ്കിൽ ചെറിയരി വാങ്ങുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ബിരിയാണി അരി പിന്നെ ഫ്രൈഡ് റൈസാണെന്നുണ്ടെങ്കിൽ നീളം കൂടിയ അരി അതാണ് ഫ്രൈഡ് റൈസിനുള്ളത് രണ്ടും രണ്ടയിറ്റാണ് അത് ഓരോ ഐറ്റത്തിനും പറയണം മ ബിരിയാണിക്കാണെങ്കിൽ ചെ പിന്നെ ബിരിയാണി അരി തന്നെ വാങ്ങണം അത് ചെറിയരി ആണ് അത് അതാണേറ്റോം നല്ലത് പിന്നെ ചിലർ ഉപയോഗിക്കാറുണ്ട് മറ്റേ ഉപയോഗിക്കാറുണ്ട് ഏത് മറ്റ നീളം അരി ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഏറ്റോം നല്ലത് ബിരിയാണിക്ക് ചെറിയരിയാണ് പിന്നെ ഫ്രൈഡ് റൈസിനാണെങ്കിൽ നീളം കൂടിയ അരിയാണ് ഫ്രൈഡ് റൈസിന് നല്ലത് ആ പറഞ്ഞോളൂ കോട്ടയംകാരാണെങ്കിൽ അവർക്ക് പിന്നെ ഫ്രൈഡ് റൈസിനോട് താല്പര്യം കുറവാ അവർക്ക് സദ്യയാണ് അവർക്ക് പിന്നെ വൈ ഡിന്നറാണ് ആവശ്യം അത് അവർ ഇഷ്ടപ്പെടുന്നത് ആ ഫ്രൈഡ് റൈസ് ഐറ്റം വയ്ക്കാം അത് കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഐറ്റം കൂടെ വയ്ക്കുന്നത് നല്ലതാണ് രണ്ടുംകൂടെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം അതെല്ലായിടത്തും അതാണ് ഒരു ഒരു ഫാഷൻ ഡിന്നറിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഈ ഫ്രൈഡ് റൈസും കൂടി ആഡ് ചെയ്യുന്നത് ഏറ്റോം നന്നായിരിക്കും ഓക്കെ ഇല്ല തീർച്ചയായിട്ടും തരാം ഓക്കെ താങ്ക് യൂ ഓക്കേ